എൻ്റെ ഗ്രാമത്തില് ജലസ്രോതസ്ന്ന് പറയുന്നത് ഈ പൈപ്പ് ലൈൻ കണക്ഷൻസ് ഈ മഴവെള്ള സംഭരണി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെയീ സർക്കാരിൻ്റെ ഈ വ ഈ പൈപ്പ് ലൈൻ കണക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒള്ളത് പിന്നെ ഈ കെണറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് ഗ്രാമത്തിൽ കൂടുതലുവായിട്ടുള്ളത് ഈ എല്ലാ വീടുകളിലും കെണറുകളാണ് അപ്പോ അത് കൂടുതലും ഈ വേനൽ അല്ലെങ്കിൽ മഴയില്ലാത്ത സമയങ്ങളിലത് കൂടുതലും വരൾച്ച ഉണ്ടാവാറുണ്ട് എടയ്ക്കൊക്കെ വെള്ളത്തിന് അങ്ങനെ ക്ഷാമം അല്ലെങ്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വർഷം മുഴുവനും കിട്ടാറില്ല ചെല മാസങ്ങൾ ചെല മാസങ്ങളില് നമുക്ക് ഈ വെള്ളം കുടിവെള്ളം വണ്ടിയിൽ വണ്ടികളില് കൊണ്ടെറക്കയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഈ പൈപ്പിലിംഗ് കണക്ഷൻസും എല്ലാ വീടുകളിലേക്കും ആയിട്ടില്ല അപ്പോ അതിൻ്റെ ഒരു ലഫ്യത കുറവും ഇപ്പോ നേരിടുന്നുണ്ട് ഈ ഈ പൈപ്പ് ലൈൻസ്ന്ന് പറയുന്നത് നമുക്ക് ഈ എല്ലാ മാസവും അല്ല പൈപ്പ് ലൈൻസല്ല കെണ വീടുകളിലെ കെണറുകളിലെ വെള്ളം ഈ എല്ലാ മാസങ്ങളിലും നമുക്ക് കിട്ടാറില്ല ഈ അത് കൂടുതലും ഈ മഴയുള്ള സമയങ്ങളിലും അങ്ങനെയുള്ള സമയങ്ങളിലുമാണ് നമുക്ക് വീടുകളിൽ കെണറിൽ വെള്ളം എപ്പോഴും കാണാറുള്ളത് ഈ വേനൽലാകുമ്പോഴും മഴയില്ലാത്ത സമയങ്ങളിലാകുമ്പോഴും മഴയില്ലാ സമയങ്ങളാവുമ്പോഴും നമുക്ക് ഈ വെള്ളം കുറവാണ് ആ പ്രദേശങ്ങളില് ആ സമയങ്ങളില് ഈ ഇപ്പാ പൊറത്തുന്നുള്ള വണ്ടികളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലുമായിട്ടാണ് വെള്ളം എത്തിക്കുകയും അത് യൂട്ട്ലൈസെയ്യുകയും ചെയ്യുന്നത് ഈ കുടിവെള്ളം കുടിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ഒന്നല്ല അപ്പോ അതുകൊണ്ട് നമുക്ക് അതിനെ വളരെയധികം അത്യാവശ്യം വെള്ള ഒരു കാര്യമാണ് വ്യത്യസ്ത ജല ജലസ്രോതസുകൾന്ന് പറയുന്നത് ഇവയൊക്കെ തന്നെയാണ് കെണറുകൾ പൈപ്പ് ലൈൻസുകൾ ഈ കേരള വാട്ടർ അതോരിറ്റിയുടെ പൈപ്പ് ലൈൻസുകൾ അത് എല്ലാ വീടുകളിലേക്കും ഉണ്ട് പക്ഷെ അതിൽ വെള്ളം നമുക്ക് കുടിവൾ ജെല നമുക്ക് എപ്പഴും അവൈലബിളായിട്ടില്ല ചെല നേരം മാത്രം നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാവുന്നതാണ് പിന്നെ കൂടുതലും ഈ മഴയില്ലാ സമയങ്ങൾ വേനൽ സമയങ്ങളില് നമുക്ക് വെള്ളം വെള്ളം കിട്ടാൻ ക്ഷാമമാണ് ആ സമയങ്ങളില് നമ്മള് ഈ വണ്ടികൾ ക് വെൽ വെല്യ വണ്ടികളിൽ ട്രക്കുകളിൽ അങ്ങനെയാണ് വെള്ളം നമ്മള് ലോടീയ്യുന്നത് കൊണ്ടെറക്കുന്നത് അത് അത് നമുക്ക് ഒട്ടും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങക്കും ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്